ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വില കല്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ജോലിക്ക് വേണ്ടീട്ടാണ് കൂടുതലായിട്ടും വില കൽപ്പിക്കുന്നത് കാരണെമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്തായാലും മെയിനായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ജോലി ഇല്ലാണ്ട് നമുക്ക് എന്തായാലും മുന്നോട്ടു ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് വരുന്നത് ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആണ് ഞാൻ വില കല്പിക്കുന്നത് ഇപ്പം ജോലി ഇല്ലാണ്ട് നമുക്കെന്തായാലും പറ്റില്ല ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മടെ ഒരു ഭാര്യേനെ നോക്കണെങ്കിലും ഇപ്പം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും കുട്ടികൾ ആയിക്കഴിഞ്ഞാൽ കുട്ടികളെ നോക്കണെങ്കിലും ഇപ്പോൾ അമ്മേനെയോ അച്ഛനെ അമ്മേനെ ഒക്കെ വയസായി അവരെ അവരുടെ ഒരു കാലശേഷം വരെ അവരൊരു ഒരു എത്ര വയസ്സ് വരെ ജീവിക്കോ അത്രയും വയസ്സ് വരെ അമ്മേനേം നല്ല രീതീൽ നോ അമ്മേനേം അച്ഛനേക്ക നല്ല രീതീൽ നോക്കാൻ വേണ്ടിട്ടൊക്കെ എന്തായാലും എനിക്ക് ജോലി എന്തായാലും ആവശ്യമൊള്ളൊരു കാര്യമാണ് അപ്പോൾ ജോലിക്കാണ് ഞാൻ കൂടുതലായിട്ടും വില കല്പിക്കുന്നത് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും